ഹലോ ഗുഡ് ആഫ്റ്റർ നൂൺ മാം ആ എൻ്റ പേര് സിൻഷാന്നാണേ ആ എൻ്റെ ഞാൻ അവിടെ പഠിക്കുന്നതാണ് അവിട പ്ലസ്ടൂന് പഠിക്കയാണ് ഇപ്പം ഓക്കെ ആ ആ മാം അതെ എനിക്ക് അവിടെ എടുക്കുന്ന കുറച്ച് ക്ലാസ്സിനെ കുറിച്ചിട്ട് കുറച്ച് എന്താ പറയാ പറയാനുണ്ട് അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല ചില ടീച്ചേഴ്സ് എടുക്കുന്നത് രണ്ട് ടീച്ചേഴ്സ് ഏ ഒന്ന് മാത്സ് ആണേ ഞാൻ ബയോ സയൻസ് ആണ് പ്ലസ്ടു അപ്പം ഒന്ന് മാത്സ് ആണ് അപ്പം ആൾ എടുക്കുന്നത് വല്ലാതെ എനിക്ക് മാത്രം അല്ല ഇതേപോലെ കുറെ കുട്ടികക്ക് ഉണ്ട് ഈ കൺസേണ് ഇഷ്യൂ എന്താന്ന് വച്ചാൽ ആള് ക്ലാസ്സ് ക്ലാസ്സിൽ വന്ന് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞരുന്നണ്ട് പക്ഷേ അത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞ് തരുന്നില്ല കുറെ പ്രോബ്ലെംസ് തന്ന് പോവാണ് ചെയ്യുന്നത് ആ ഇല്ല ഇല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞ് തരുന്നില്ല കുറെ പ്രോബ്ലംസ് തന്നിട്ട് അത് ചെയ്തോളൂന്ന് പറയും പിന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റാഞ്ഞാ ചോദിക്കുന്ന സമയത്ത് അത് അന്ന് എടുത്തതല്ലേ അങ്ങനെ ഒക്കെയാ സംസാരിക്ക അത് പ്രോപ്പർ ആയിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരില്ല

അതെ ഞങ്ങക്ക് പ്രോബ്ലംസ് തന്നിട്ട് ആള് ഫോണിൽ കളിച്ചിരിക്കും അപ്പം അത് ഭയങ്കര ആ ഭയങ്കര ഡിസ്റ്റർബൻസ് അതെ അതെ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീല് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങക്ക് വേണ്ട പോർഷൻസ് ഒന്നും കിട്ടുന്നില്ല ക്ലാസ്സ്

ഓക്കെ ഓക്കെ മാം എന്തായാലും ഒന്ന് നോക്കീട്ട് പറഞ്ഞാൽ മതി ഓ ശരി എന്നാൽ താങ്ക് യൂ